ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തോൻപത് ഏപ്രിൽ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട്